ഞങ്ങളുടെ ഗ്രാമത്തിൽ തുറസ്സായ സ്ഥലങ്ങളിൽ വിസർജ്ജനം ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ ദോഷങ്ങൾ ഒരുപാട് അസുഖങ്ങൾ വരാനും മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുണ്ട് മുമ്പ് കാലങ്ങളിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ കണ്ട് കണ്ട് വന്നു കൊണ്ടിരുന്നത് ഇന്ന് എല്ലാവർക്കും ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് എന്നാലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നു വെച്ചാൽ തമിഴ്നാട് ഏരിയയിലോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ബാത്റൂമുകളില്ല മലമൂത്ര വിസർജ്ജനം സാധാരണയായി പറമ്പിൽ പോകുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രാമത്തിലും പൊതുവേ കണ്ടു വരുന്നുണ്ട് ഇങ്ങനെയൊരു ഇത് പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകാനുള്ള ഇത് കൂടുതലാണ് കാരണം ഈച്ചകളും അതും ഇതും എല്ലാം അതിൽ പോയി നമ്മളുടെ വീട്ടിലും ഈച്ചകൾ വരാറുണ്ട് അത് എവിടെയൊക്കെ വന്നു കയറുന്നെന്നോ ഫുഡ്ഡിൽ വരുന്നെന്നോ ഇതൊന്നും നമുക്കറിയില്ല അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ ആകാനും ബാക്ടീരിയയും വൈറസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും വിസർജ്ജനത്തിന് മലമൂത്ര വിസർജ്ജനം സാധാരണമായി കണ്ടു വന്നതു കൊണ്ടു തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അപേക്ഷ നൽകുകയും ഇതിനു വേണ്ടിയിട്ട് ബാത്റൂമുകൾ ഇതാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് വന്നോളം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്താ ബസ് സ്റ്റാൻഡിൽ എല്ലായിടവും ഇപ്പം ബാത്ത്റൂമുകളുണ്ട് ഇപ്പോൾ റോഡുകളിലായാലും ബാത്ത്റൂമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാലും അസുഖങ്ങൾ ഒരുപാട് കൂടുകയാണ് ബാക്ടീരിയ ഇൻഫെക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുകയും മനുഷ്യനെ മരണത്തിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നു എലിപ്പനി അങ്ങനത്തെ എന്തെല്ലാം വരുന്നു എലികളിൽ നിന്നും വെള്ളത്തിൽ നിന്ന് നമ്മളും മലമൂത്രം ചെയ്യുമ്പോൾ മഴ പെയ്യുമ്പം വെള്ളം ഒലിച്ചു പോകും അതിൽ നമ്മൾ ചവിട്ടുകയും എടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനേൽക്കും കാരണം കുട്ടികൾ അത്രയും ശ്രദ്ധാപൂർവ്വം ഒന്നും നടക്കത്തില്ലല്ലോ പിള്ളേർ കളിച്ചു ചിരിച്ച് നടക്കും പിള്ളേരുടെ കുട്ടികളുടെ ദേഹത്താകുകയും അതു വഴി കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാം വലിയവർക്കാണെങ്കിലും മരണം സംഭവിക്കാവുന്നതാണ് അത് കാരണം മലമൂത്ര വിസർജ്ജനം പൊതുവെ ഇപ്പം കണ്ടു വരുന്നുണ്ട് തമിഴ്നാട് ഏരിയകളിലാണ് ഇതിപ്പം സാധാരണയായി കണ്ടു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മുടെ നാടുകളിലുണ്ട് ആ പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്തു പോകുന്നവർ റോഡുകളിൽ പോകുകയും ബാത്റൂമിൽ അല്ലാതെ റോഡുകളിൽ പോകുകയും എടുക്കുകയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മാക്സിമം എല്ലാവരും ബാത്റൂമുകളിൽ തന്നെ ഉണ്ടാകുകയും അവിടെ പോകുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇതിൻ്റെ ദോഷങ്ങൾ വഴി ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം നമുക്ക് വല്ല അസുഖവും വരാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെൽ എല്ലാം നല്ല മാറ്റങ്ങൾ വരണം സർക്കാരിൻ്റെ രീതിയിൽ നിന്നും മാറ്റങ്ങൾ വരികയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം അതുകൊ ദോഷങ്ങൾ നമ്മുടെ ബാക്ടീരിയയും വൈറസും എല്ലാം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്